ഇപ്പോൾ എൻ്റെ റണ്ണിങ് ഷൂസ് ഇപ്പം രണ്ട് മൂന്നണം ഉണ്ട് കാരണന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് കൂടുതലായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള റണ്ണിങ് ഷൂസാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് അത് ഇപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊന്നും നമ്മളുടെ അടുത്ത് ഉണ്ടാകില്ല അപ്പം എൻ്റെ അടുത്ത് ഉണ്ടാകില്ല അപ്പോൾ നമ്മള് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡിഡാസിൻ്റെ നൈക്കിൻ്റെ പ്യൂമയിൻ്റെ ഇങ്ങനത്തെ റണ്ണിങ് ഷൂസാണ് നമ്മള് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പം അതൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലോങ്ങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഷൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പോ അതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പം അതായത് എപ്പഴും നമ്മൾ ഓടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിയിലുള്ള ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കില് ഇങ്ങനത്തെ നല്ല നല്ല ഷൂസൊക്കെ യൂസ് ചെയ്യണം അതിന് ശേഷം പൈസ കൂടുതലാണ് പക്ഷെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതിനെ കാട്ടിലും നല്ലത് നമ്മൾ ഇപ്പം ഒറ്റയടിക്ക് നമ്മളൊരു നല്ലൊരു ഷൂ നോക്കി വാങ്ങുന്നതാണ് അതാണെങ്കില് ഒരു രണ്ടോ മൂന്നോ വർഷം നമുക്ക് ചിലപ്പോൾ നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ ആദ്യം വാങ്ങിയത് ഒരു അഡിഡാസിൻ്റെ ഷൂ ആണ് അത് ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് നമുക്ക് എനിക്ക് കിട്ടിയിരുന്നു പിന്നെയാണ് അതിൻ്റെ സോളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നത് അപ്പ അതിൻ്റെ സ്പൈക്കും കാര്യങ്ങളൊക്കെ പോകേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പ അതൊക്കെയാണ് ഞാന് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പിന്നെ സ്പോർട്സ് വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും ജേഴ്സിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ജേർസിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഒക്കെ ആയത് കൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സുഖത്തില് നമുക്ക് വസ്ത്രം ഇടാവുന്നതാണ്